സ്റ്റേജിനു മുന്നില് മറ്റുള്ളവരോട് മുന്നില് പാടുമ്പോൾ എനിക്ക് ഭയങ്കര പേടി ഉണ്ടാവാറുണ്ട് അതിനു മുന്നേ ഞാന് എന്തൊക്കെയാ ചെയ്യാന്ന് ചോദിച്ച് പറഞ്ഞാൽ കുറച്ചുനേരം ബ്രീത്ത് എടുക്കും

പിന്നെ ഇവിടെ പാടിയ പാടിയ ആള്ക്കാരുടെ മുമ്പറത്തൊക്കെ പോയി കുറച്ചുനേരം ഇരിക്കുമ്പം അവർ അങ്ങനെ സപ്പോര്ട്ട് ചെയ്തു സംസാരിക്കും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ആരിനേം പേടിക്കണ്ട ആരും ഒന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ചു പോസിറ്റീവ് എനര്ജി ഒക്കെ നമ്മൾക്ക് തരും അങ്ങനെ പോവും പോയിട്ട് ജസ്റ്റ് എല്ലാവരെയും ഒന്ന് നോക്കും എല്ലാവരേയും നോക്കീട്ട് പാടാന് തുടങ്ങീന്ന് പറഞ്ഞാൽ ആ വരി തന്നെ ആയിരിക്കും മനസ്സിൽ വരുക അതിനെ തന്നെ കോണ്സെന്ട്രേറ്റ് ചെയ്തിട്ടേ ഞാന് പാടാന് ശ്രമിക്കുകയുള്ളൂ മറ്റൊരാളിനെ മുന്നേ നോക്കാന് അധികം ശ്രമിക്കില്ല കൂടുതല് ആ പാട്ട് തന്നെ ആയിരിക്കും ഞാന് കോണ്സെന്ട്രേറ്റ് ചെയ്യാന് ശ്രമിക്കുകയുള്ളൂ അപ്പം നല്ലപോലെ പാടാന് കിട്ടും